ഹലോ ഹലോ കേൾക്കാൻ പറ്റുന്നുണ്ടോ ഹലോ ഗ്യാസ് ഏജൻസി അല്ലെ ഓക്കെ നിങ്ങൾ ഷെഡ്യൂള് മാറ്റി ആയിരുന്നല്ലേ ഇത് വ്യാഴാഴ്ച്ച വ്യാഴാഴ്ച്ച അല്ലായിരുന്നോ തരാമെന്ന് പറഞ്ഞത് നമ്മുടെ ഗ്യാസ് ഡെലിവറി ചെയ്തു കൊണ്ടിരുന്നത് വ്യാഴാഴ്ച ഇല്ലായിരുന്നോ അത് ചൊവ്വാഴ്ച്ചത്തേക്ക് മാറ്റി ആയിരുന്നോ ശോ എന്തു ചെയ്യാനാണ് അതെന്ത് പറ്റി പെട്ടെന്ന് വ്യാഴാഴ്ച്ച ആയിരുന്നല്ലോ നിങ്ങൾ ഡെലിവറി ചെയ്തു കൊണ്ടിരുന്നത് ഞങ്ങൾ അതനുസരിച്ചു ആയിരുന്നു ഇവിടെ അറേഞ്ച് ചെയ്തത് എല്ലാം ഗ്യാസ് കുറ്റിയാണെന്ന് പറഞ്ഞാൽ നമുക്ക് അത് വയ്ക്കണമല്ലോ ഞങ്ങൾ രാവിലെ ജോലിക്ക് പോകുന്നവരാണ് അപ്പോൾ ഞമ്മക്ക് അത് ഇന്ന് നേരത്തെ ഒന്ന് പറയേണ്ടതായിരുന്നു എന്തായാലും മെസ്സേജിൻ്റെ അകത്തൂടെ ആ പക്ഷെ വ്യാഴാഴ്ച്ച തന്നെ ആയിരുന്നു കുറച്ച്കൂടി നല്ലതായിരുന്നു വ്യാഴാഴ്ച്ച ആയിരുന്നു നമ്മൾക്ക് അതെങ്ങനെ ഇങ്ങനെ നിങ്ങൾ ഒരു ആറ് മാസം കൂടുമ്പോൾ ഇങ്ങനെ ഇത് മാറ്റാറുണ്ടോ അതായത് ഇതിങ്ങനെ ചെയ്യാറുണ്ടോ ഞങ്ങൾ ഇവിടെ പുതിയ താമസക്കാരാണ് അപ്പം നമ്മൾക്ക് അറിയത്തില്ലായിരുന്നു ഇങ്ങനെ ഉണ്ടാവും എന്ന് നമ്മൾ കിട്ടുന്ന ഷെഡ്ഡുളുകൾ വ്യാഴാഴ്ച്ച അല്ലായിരുന്നോ കിട്ടിക്കൊണ്ടിരുന്നത് അത് അനുസരിച്ച് പിന്നെ ഇന്നാണെങ്കിൽ ഗ്യാസ് തീർന്നിട്ട് ഇരിക്കുകയാണ് എന്നാ ചെയ്യാനാ അപ്പം ഇനി ഇപ്പോൾ ചൊവ്വാഴ്ച്ച പറ്റത്തുള്ളൂ അല്ലേ ഓ ഒ ശരി ഇനി ഇപ്പം ചൊവ്വാഴ്ച്ചയെ പറ്റത്തുള്ളൂ എന്നുണ്ടെങ്കിൽ പക്ഷെ ഒരു മൂന്നു ദിവസം മുന്നേലും നിങ്ങൾ അതൊന്ന് പറയുവായിരുന്നെങ്കിൽ നല്ലതായിരുന്നു ഈ വ്യാഴാഴ്ച്ച വ്യാഴാഴ്ച്ച കിട്ടുമെന്ന് ഓർത്തു കൊണ്ടാണ് ഇരുന്നത് നമ്മുടെ കൊറേ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നത് ഇത് ജോലിക്ക് പോവുമ്പം ഇത് ഗ്യാസ് കുറ്റിയും വയ്ക്കണമല്ലോ ഇവിടെ വച്ചോ വെളിയിൽ ഇറക്കി വച്ചാൽ അല്ലേ നിങ്ങൾ വരുന്ന സമയം അനുസരിച്ച് അത് അനുസരിച്ച് അതിന് വ്യാഴാഴ്ച്ച നമ്മൾ അത് എല്ലാം അനുസരിച്ചോ ഇച്ചിരി അര മണിക്കൂർ നേരത്തെ തന്നെ അതെടുത്ത് വച്ചിട്ട് പോവാം എന്നൊക്കെ കരുതിയൊക്കെ ഇരിക്കുവായിരുന്നു ഇനി ഇപ്പോൾ ചൊവ്വാഴ്ച്ച ചൊവ്വാഴ്ച്ചത്തേക്ക് പറ്റത്തുള്ളൂ എന്നുണ്ടെങ്കിൽ അത് ഒരു മൂന്നു ദിവസം മുന്നേ ആണെങ്കിൽ നിങ്ങൾ ഒന്ന് ഇൻഫോം ചെയ്യണമല്ലോ അത് നേരം തൊട്ട് നേരത്തെ പറയാതിരുന്നാൽ നമുക്ക് അതൊരു ബുദ്ധിമുട്ട് ആയിരിക്കും കറക്റ്റ് ഇന്ന് ഇന്നുണ്ടെന്നും കരുതിയല്ലേ ഇരുന്നത് പക്ഷെ ഇന്നില്ലാതെ വന്നപ്പം ഭയങ്കരമൊരു ബുദ്ധിമുട്ടായി പോയി അത് നമ്മുടെ ഒത്തിരി നമ്മൾ ഓരോ കാര്യങ്ങളും പ്ലാൻ ചെയ്തു പ്ലാൻ ചെയ്തു അത് അനുസരിച്ചല്ലേ ഓരോന്നും നടത്തുന്നത് അപ്പോഴത്തേയ്ക്ക് ഇങ്ങനെ വന്നപ്പം നമുക്ക് അതൊരു ഭയങ്കരമൊരു ബുദ്ധിമുട്ടായി പോയി അപ്പോൾ അങ്ങനെ ഒക്കെയുള്ള കാര്യങ്ങൾ എനിക്ക് മാത്രമല്ലല്ലോ ഇങ്ങനെ ബുദ്ധിമുട്ടുണ്ടാവുന്നത് ഇപ്പം ഡെലിവറി എല്ലാ വ്യാഴാഴ്ച്ച ആണെന്നും കരുതിക്കൊണ്ടിരുന്ന ആൾക്കാർക്ക് പെട്ടന്ന് ഇത് മാറിപ്പോയപ്പോഴത്തേക്ക് അവർക്ക് അവരും വിചാരിച്ചു കൊണ്ടിരുന്നത് വ്യാഴാഴ്ച്ച കിട്ടും എന്നല്ലേ ഗ്യാസ് തീർന്നിട്ട് രണ്ട് കുറ്റിയുള്ള ഞങ്ങൾക്ക് കുഴപ്പമില്ല കുഴപ്പമില്ല എന്നല്ല ഞങ്ങൾക്കും അതിൻ്റെതായ ബുദ്ധിമുട്ടുണ്ട് പക്ഷെ ഒരു കുറ്റി മാത്രമായിട്ട് ഉപയോഗിക്കുന്നവരാണ്ന്നു എന്നുണ്ടെങ്കിലോ അവർ എന്നാ എടുക്കും അവർക്ക് എന്നാ ചെയ്യാൻ പറ്റും അത്കൊണ്ട് നിങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കുറച്ചു കൂടെയൊക്കെ കുറച്ചു കൂടെയൊക്കെ നല്ല രീതിയിൽ ഒന്നെങ്കിൽ മെസ്സേജ് ഇട്ടോ അങ്ങനെ എന്തോ നേരെ മുൻകൂറായിട്ട് പറഞ്ഞാൽ അല്ലേ പറ്റത്തുള്ളു അല്ലാതെ നമ്മൾക്ക് അറിയത്തില്ലല്ലോ ഏതൊകെ ആയാലും ഇനി ഇപ്പോൾ ചൊവ്വാഴ്ച്ചയെ പറ്റത്തുള്ളൂ അല്ലേ ശരി ശരി ശരി ഓക്കെ ഓക്കെ എന്നാൽ പിന്നെ അങ്ങനെ ആയിക്കോട്ടെ അപ്പം ഒരു ഞാൻ പറഞ്ഞിട്ട് അങ്ങനെ ഒരു ഡെലിവറി ഷെഡ്യൂള് മാറ്റം ഉണ്ട് എന്നുണ്ടെകിൽ നിങ്ങൾ ഒരു മൂന്നു ദിവസം മുന്നേലും അറിയിക്കണം എന്നാലേ അത് അനുസരിച്ചു വേണ്ട കാര്യങ്ങൾ ചെയ്യാനായിട്ട് പറ്റത്തുള്ളു